ഇപ്പോൾ വീട്ടിലാണെങ്കിൽ മതപരമായ ഉത്സവം എന്നു പറയുന്നത് മൊത്തത്തിലും ആഘോഷിക്കുന്നതാണ് വിഷുവും ക്രിസ്മസും ഓണം ഓണം എന്ന് പറയുന്നത് മൊത്തത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ ആഘോഷിക്കുന്നതാണ് അപ്പം ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റും ഇപ്പം അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസം പൂവിടുന്നത് അതാണ് ഓണത്തിൻ്റെ ഹൈലൈറ്റ് ഇപ്പോൾ തിരുവോണമാണ് എല്ലാവരും ആഘോഷിക്കുന്നത് അത്തത്തില് ഇച്ചിരി തുമ്പയും തുളസിയും ഒക്കെ വെച്ച് ഇച്ചിരി വട്ടത്തിൽ പൂവിട്ട് രണ്ടാമത്തെ ദിവസം വെറൈറ്റി മൂന്നാമത്തെ ദിവസം അങ്ങനെ പല രീതിയിൽ പൂവിട്ട് പൂവിട്ട് തിരുവോണത്തിനാണ് ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്നാം ഓണം അങ്ങനെ നാലുദിവസം ഓണമിട്ട് ആ നാല് ദിവസവും ആഘോഷിക്കുന്നതാണ് മലയാളികൾ അപ്പം ഒന്നാം ഓണത്തിന് കുറച്ചു സദ്യ ചോറും ഇച്ചിരി കറികളും തിരുവോണത്തിനാണെങ്കിൽ സദ്യയാണ് രണ്ടുകൂട്ടം പായസം ഒക്കെ ഉണ്ട് അത് ഇപ്പം രാവിലെ രാവിലെ പൂവൊക്കെ പറിച്ച് പൂവൊക്കെ ഇട്ട് ഉച്ചയാകുമ്പോൾ സദ്യ പുത്തൻ പുത്തൻ ഓണക്കോടിയൊക്കെ ഇട്ട് പുത്തൻ ഡ്രസ്സ് ഒക്കെ ഇട്ട് ഇപ്പം എവിടെയെങ്കിലും യാത്ര ചെയ്യാനാണെങ്കിൽ ഓരോരുത്തരും യാത്ര ചെയ്തു അങ്ങനെയൊക്കെ ഓരോ രീതിയിലും പലരീതിയിലും ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നു മൂന്നാം ഓണം അതുപോലെതന്നെ ആഘോഷിക്കുന്നു നാലാം ഓണം അതുപോലെതന്നെ ആഘോഷിക്കുന്നു അതുപോലെതന്നെ വിഷു വിഷു ആണെങ്കിലും ഹിന്ദുക്കളാണ് കൂടുതലും ആഘോഷിക്കുന്നത് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കണി എല്ലാം ഒരുക്കി എല്ലാ പച്ചക്കറിയും പഴവും കൃഷ്ണനേം ഒക്കെ ഒരുക്കി അമ്മ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ആകുമ്പോൾ എല്ലാവരുടെയും കണ്ണുപൊത്തി കൃഷ്ണനെ കാണിക്കുന്നു കണി കാണിക്കുന്നു കുഞ്ഞു പിള്ളേർക്ക് വിഷു കൈനീട്ടം കൊടുക്കുന്നു രാവിലെ അമ്പലത്തിൽ പോകുന്ന അമ്പലത്തിൽ നിന്ന് വിഷുക്കൈനീട്ടം കൊടുക്കുന്നു അതൊക്കെയാണ് വിഷുവിലെ ഹൈലൈറ്റ് എന്നിട്ട് പിന്നെ ഫുഡ് ആണെങ്കിലും സദ്യയാണ് രാവിലെ തന്നെ അമ്മയെല്ലാം ഉണ്ടാക്കി വെയ്ക്കും രണ്ടുകൂട്ടം പായസവും അതുപോലെ അതുപോലെതന്നെ ക്രിസ്മസ് ആണെങ്കിലും ക്രിസ്ത്യാനികളാണ് കൂടുതൽ ആഘോഷിക്കുന്നത് എന്നാലും ഹിന്ദുക്കൾ കൂടുതലും ആഘോഷിക്കുന്നുണ്ട് എന്നിട്ട് പുൽക്കൂട് ഉണ്ടാക്കുന്നു ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നു ബലൂൺ കെട്ടി തൂക്കുന്നു തോരണങ്ങളെല്ലാം ലൈറ്റ് എല്ലാ പരിപാടികളും ചെയ്യുന്നു ഇപ്പം ഇരുപത്തിയഞ്ചാം തീയതി ആകുമ്പോഴും ഉണ്ണിയേശുവിനെ എടുത്ത് പുൽക്കൂട്ടിലേക്ക് വയ്ക്കുന്നു കേക്ക് മുറിക്കുന്നു രാവിലെ ആണെങ്കിലും അപ്പവും ബീഫും ഒക്കെ ആയിരിക്കും ഉച്ചയ്ക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് കൂടുതലും അതെന്നു പറഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര ആഘോഷമാണ് രാവിലെ എണീറ്റ് പള്ളിയിൽ പോകുന്നു പ്രാർത്ഥനയും പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ നടക്കുന്നു അതുപോലെതന്നെ മുസ്ലിമുകളാണെങ്കിലും അവരുടേതായ ദിവസം വരുമ്പോൾ അവരട് അവരത് ആഘോഷിക്കുന്നു